മറ്റ് പട്ടണങ്ങളിലെ സ്കൂളിലേക്ക് കുട്ടികൾ ബസ്സിനാണ് യാത്ര ചെയ്യുന്നത് രാവിലെ എട്ട് മണിക്ക് ബസ്സ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം സ്കൂൾ നാല് മണിക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ബസ്സ് തിരിച്ച് അതേസ്ഥലത്ത് തന്നെ കുട്ടികളെ തിരിച്ച് ഉത്തരവാദിത്തത്തോടുകൂടി വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുന്നു മികച്ച വിദ്യാഭ്യാസം തന്നെയാണ് മറ്റു പട്ടണങ്ങളിലെ സ്കൂൾ സ്കൂൾ അധ്യാപകർ നൽകുന്നത് നല്ല രീതിയിൽ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നതും ഹോംവർക്കും വീട്ടിലേക്ക് ചെയ്ത് കൊടുക്കുന്നതും എല്ലാ രക്ഷിതാക്കളും നന്നായി ശ്രദ്ധിക്കാറുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ആയിക്കോട്ടെ മലയാളം മീഡിയം ആയിക്കോട്ടെ നല്ല രീതിയിൽ തന്നെ അദ്ധ്യാപകർ അവർക്ക് പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ മനസ്സിലാവാത്ത കുട്ടികളെ പേഴ്സണൽ ആയിട്ട് വിളിച്ചിട്ട് ടീച്ചർമാർ ചെയ്ത് കൊടുക്കാറുണ്ട് വർക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ കുട്ടികൾ ഇപ്പം നല്ല വിദ്യാഭ്യാസത്തോട് കൂടെയാണ് പഠിച്ച് വരുന്നത് ഇപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് രക്ഷിതാക്കൾക്ക് ടീച്ചർമാരോട് ചോദിക്കാനും കുട്ടികളെ വിദ്യാഭ്യാസം നല്ല രീതിക്കാണോ പോകുന്നതെന്ന് അന്വേഷിക്കാനുമുള്ള അവകാശം അധികാരം ഒക്കെയുള്ളത് കൊണ്ട് തന്നെ അവരുടെ വിദ്യാഭ്യാസം നമുക്ക് മെച്ചപ്പെടുത്താനും കഴിയും